യൂട്യൂബിൽ എനിക്ക് ഷാമിസ് കുക്കിങ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ചേട്ടൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ ഒരുപാട് ഞാനിപ്പോൾ ഒരു ഫുഡ് കൂക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ശേഷം മാത്രമേ ഞാൻ ഫുഡ് കൂക്ക് ചെയ്യാറുള്ളൂ